ഒരു തുണി നെയ്ത്ത് മില്ല് ഉണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു തുണി നെയ്ത്ത് നെയ്ത്ത് യന്ത്രമുണ്ടെങ്കിൽ നല്ല ലാഭത്തിന് തുണിയൊക്കെ നല്ല വസ്ത്രങ്ങളായിട്ട് ഉപയോഗിക്കുമ്പോൾ വിലക്കുറഞ്ഞ രീതിയിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയല് ഉപയോഗിക്കാൻ സാധിക്കും കുറേ കഴിയുമ്പോൾ അത് നമുക്ക് വിറ്റ് നല്ല ചെറിയ തുകയ്ക്ക് ആൾക്കാർക്കത് വില കൊടുത്ത് നല്ല ലാഭത്തിലേക്ക് എത്താൻ സഹായിക്കും സാധാരണക്കാരായ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യുമ്പോൾ അത് നല്ല ഒരു കാര്യമായിട്ട് തോന്നുന്നു അങ്ങനെ ഡ്രസ്സ് നെയ്ത് അങ്ങനെയുള്ളരാവുമ്പോൾ അടുത്തുള്ള സാധാരണക്കാരായ ആൾക്കാർക്ക് കുറേ ലാഭത്തിന് ഡ്രസ്സിടാനും അവർക്ക് സന്തോഷം കണ്ടെത്താനും സഹായിക്കും വലിയ വലിയ കാശുള്ളവരൊക്കെ ഇഷ്ടംപോലെ ഡ്രസ്സ് വാങ്ങി വേടിച്ച് ഉപയോഗിച്ച് പിന്നെ വേറെ ആർക്കെങ്കിലും കൊടുത്ത് തീർക്കുന്ന പോലെ അല്ല സാധാരണക്കാരായ ആൾക്കാർക്ക് ഏറ്റവും വിലക്കുറഞ്ഞ നല്ല മെറ്റീരിയൽ എടുക്കാൻ എപ്പോഴും സാമ്പത്തികം ഒന്നും അനുവദനീയമല്ല പിന്നെ വേടിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഉള്ളതൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ജീവിക്കുന്ന ആൾക്കാരാണ് സാധാരണ ആൾക്കാർ അങ്ങനെ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് തുണി നെയ്ത്തുണ്ടെങ്കിൽ നല്ലപോലെ സഹായിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് നമുക്കും ബിസിനസ്സ് നല്ല പോലെ വളർത്തിയെടുക്കാൻ പറ്റും അതിലൂടെ അവർക്കും നല്ല നല്ല ഗുണമേന്മയുള്ള നല്ല ഡ്രെസ്സുകൾ ഉപയോഗിച്ച് നല്ല തുണിയാണെങ്കിൽ തന്നെ ഉപയോഗിച്ച് വിലക്കുറവിലവർക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ സാധിക്കും എപ്പോഴും എപ്പോഴും വേടിച്ച് കീറി പൊട്ടി പൊളിഞ്ഞതുമായ തുണിത്തരങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ വിഷമവും പൈസ ഇല്ലാത്തതിൻ്റെ വെഷമവും തുണി എടുക്കാൻ മടിക്കുന്നതിൻ്റെ കാരണങ്ങളാകും അങ്ങനെയുള്ളപ്പോൾ അടുത്തുള്ളവരക്കെ ഓടി ഓടി വന്ന് ഇഷ്ടമുള്ള തുണി നെയ്ത്ത് കണ്ടുകൊണ്ട് നേരിട്ട് കണ്ടുകൊണ്ട് അവർക്കത് വാങ്ങിച്ച് വേടിക്കുന്നതിലൂടെ നമുക്കും ഒരു സന്തോഷം കിട്ടും അല്ലാതെ കടയിൽ ചെന്നാൽ നല്ല അളവിനോ എന്നാൽ എല്ലാത്തിനും ഭയങ്കര വിലയായിരിക്കും പറയുന്ന മെറ്റീരിയൽ ക്വാളിറ്റി ഇല്ല പക്ഷെ തുണിക്കടക്കാർക്ക് കിട്ടുന്നതൊക്കെ നല്ല ലാഭത്തിനുമാണ് സാധാരണക്കാർക്ക് തുണി വേടിക്കാതിരിക്കാൻ പറ്റുകേലാത്തതുകൊണ്ട് അവർ ഉള്ള കൈസ് കൊടുത്ത് ആ ഡ്രസ്സ് ഉപയോഗിക്കുന്നു